നമ്മുടെ വീട്ടില് സാധാരണയായിട്ട് ഉണ്ടാകാറുള്ള പഴവർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ ചക്ക മാങ്ങ പോലെ ഉള്ള അതുപോലെ പപ്പയ്ക്ക പോലുള്ള നാടൻ വർഗ്ഗങ്ങളുണ്ട് അതുപോലെ തന്നെ വിദേശ പഴവർഗ്ഗങ്ങളായ റംബൂട്ടാൻ മാങ്കോസ്റ്റീൻ പോലെ ഉള്ള പഴവർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മള് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം അതിൻ്റെ സീസണാകുമ്പോൾ കായ്ച്ചിട്ട് നല്ലത് പോലെ തന്നെ നമുക്ക് കായ്കള് കിട്ടാറുണ്ട് ഈ ചക്കയും മാങ്ങയും പോലെ ഉള്ള പഴവർഗ്ഗങ്ങൾ നമ്മള് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുകയും എല്ലാവരും ഒത്തുചേരുന്ന സമയം എപ്പഴാണോ അതിനനുസരിച്ചിട്ടെല്ലാവരും കൂടിയിരുന്നിട്ട് കഴിക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് അതുപോലെ മാങ്ങയൊക്കെ നമ്മള് കൂടുതലും ആ ഒരു സമയം ആകുമ്പോൾ പിന്നെ കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അച്ചാറ്കളെല്ലാം പോലുള്ള കാര്യങ്ങള് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളെന്തൊക്കെയാണോ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളേതൊക്കെയാണോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളുപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ റംബൂട്ടാനും മാങ്കോസ്റ്റീൻ പോലെ ഉള്ള പഴവർഗ്ഗങ്ങളാണ് എന്നുടെങ്കിൽ നമ്മള് കൂടുതലായി ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കില് നമ്മള് അയൽവക്കത്തുള്ള ആളുകൾക്കെല്ലാം കൊടുക്കാറുണ്ട് അതുപോലെ പൂക്കളാണെങ്കിലും കടലാസ് പൂവ് മുല്ലപ്പൂവ് റോസാപ്പൂക്കൾ പോലുള്ള പല തരത്തിലുള്ള പൂക്കള് നമ്മള് വീട്ടില് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് പൂവിടുന്ന ഒരു സമയാവാണെന്നുണ്ടങ്കില് കഴിവതും പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ കുട്ടികളോ മറ്റോ ചോദിക്കാണെന്നുണ്ടെങ്കിൽ മാത്രേ അവർക്ക് കൊടുക്കാറുള്ളൂ അതല്ലാത്ത സാഹചര്യത്തിലൊന്നും പൊട്ടിക്കാറില്ലന്നൊന്ന് കാണുന്നൊരു ഭംഗി ആസ്വദിക്കുക തന്നെയാണ് സാധാരണ എല്ലാവരെയും പോലെ നമ്മള് ചെയ്യാറായിട്ട് ഉള്ളത്